ഹലോ ഇത് ക്യാബിൻറ്റെ ഓഫീസല്ലേ അതെയതെ ഞാൻ കുറച്ചു നേരം മുൻപ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എറണാകുളം വരെ ഒരു ക്യാബ് വേണമെന്ന് പറഞ്ഞോണ്ട് അതെയതെ വാ പുൽപ്പള്ളിയിൽ നിന്ന് എറണാകുളം വരെ അതന്നെ അതന്നെ ഞാൻ നിങ്ങളോട് ക്യാബ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് അടക്കം നിങ്ങൾക്ക് തന്നതായിരുന്നു അതേയതേയതേ ഇപ്പം നിങ്ങളുടെ ഡ്രൈവറ് ഈ കൊറോണ ഉള്ള ടൈമിൽ മാസ്ക് പോലും ധരിക്കാണ്ടാണ് വണ്ടിയിൽ ഇരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സേഫ്റ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് പുറത്ത് ബസ്സിൽ പോലും പോവാണ്ട് ക്യാബ് വിളിച്ച് ബുക്ക് ചെയ്ത് നിങ്ങളോട് ആവശ്യപ്പെട്ട് വിളിച്ചുപറഞ്ഞത് അപ്പം നിങ്ങൾ എന്താണ് ഇങ്ങനെ നിങ്ങളുടെ ഡ്രൈവറ് എന്താ പറയാ കൈ സാനിറ്റൈസ് ചെയ്യുകയോ ഒരു മാസ്ക് ധരിക്കുവോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം നമുക്ക് എന്ത് സേഫ്റ്റി ആണ് ഇതിനകത്ത് ഉള്ളത് ഓക്കേ ഓക്കേ നിങ്ങൾ ഒന്ന് ഒന്നുകിൽ നിങ്ങളുടെ ഡ്രൈവറെ വിളിച്ചിട്ട് നിങ്ങൾ വൃത്തിയായിട്ട് ഹാൻഡൊക്കെ നല്ല രീതിക്ക് സാനിറ്റൈസ് ചെയ്ത് മാസ്ക് ധരിച്ചതിനുശേഷം മാത്രം വാഹനം ഓടിക്കാൻ പറയുക ഇതിപ്പോൾ ഞാൻ ഈ വാഹനത്തിൽ ഇരിക്കുമ്പോൾ ഇയാൾക്ക് വല്ല കോവിഡോ വല്ലതും ഉണ്ടെങ്കിൽ അതെനിക്ക് കൂടെ പകരും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്കെൻറ്റെ ജോലി നഷ്ട്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കെൻറ്റെ കുടുംബത്തിനെ നോക്കാനോ കാര്യങ്ങളൊന്നും സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ വിളിച്ച് ഇത് ചെയ്യാൻ പറയുക മാസ്ക് ധരിക്കാനും കൈ വാഷ് ചെയ്യാനും കറക്ട് ടൈമിൽ വാഷ് ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് വാഹനം ഓടിക്കാനും പറയേണ്ടതാണ് ഓക്കേ ഓക്കേ നിങ്ങൾ വിളിച്ച് പറഞ്ഞോളൂ ഓക്കേ താങ്ക് യൂ താങ്ക് യൂ